കാലിക്കറ്റ് കഫെ റസ്റ്റോറൻറ്റ് അല്ലേ ഓക്കേ ഞാൻ പിന്നെ മോണിംഗ് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അതെ അതെ അപ്പം ഇപ്പോൾ ഇപ്പോഴാണ് എത്തിയത് ഒരു ഇപ്പം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും ആണെ ആ അതെ അതെ ആ പൊറോട്ടയും ചില്ലി ചിക്കനും പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയത് പിന്നെ അതായത് ഞാന് പതിനഞ്ച് പിന്നെ അല്ല ഇരുപത് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് ഇരുപത് പൊറോട്ടയും ചില്ലി ചിക്കനും പക്ഷേ ഇപ്പോൾ കിട്ടിയത് എനിക്ക് അതായത് പത്ത് പിന്നെ ഗോതമ്പ് പൊറോട്ടയും പത്ത് ചപ്പാത്തിയും ആണ് കിട്ടിയത് അതെന്താണ് നിങ്ങൾ അങ്ങനെ അയച്ചത് ഞാനിപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നതു കൊണ്ട് പെട്ടെന്ന് ഇതാക്കിയതായിരുന്നു അപ്പോൾ ഉച്ചക്കൊക്കെ എങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഒക്കെ കൊടുക്കുന്നത് ഇപ്പം നിങ്ങളങ്ങോട്ട് തിരിച്ചു കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കൊണ്ട് തരിക ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്ന് ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് എനിക്ക് ഇരുപത് പൊറോട്ട തന്നെ കൊണ്ട് തരണം കേട്ടോ ചില്ലി ചിക്കൻ കറിയൊക്കെ ഓക്കേയാണ് ഓക്കേ ഓക്കേ ആ ഓക്കേ